മലയാളഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ മറ്റുള്ളവരെ അപേഷിച്ച് അതായത് തമിഴർ ഹിന്ദിക്കാർ ഇവർക്കൊക്കെയെന്നു പറഞ്ഞാൽ മലയാളഭാഷ പഠിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് കാരണം വച്ചാൽ അവരെ സംസാരം കേൾക്കുമ്പോൾത്തന്നെ നമുക്ക് ചിരിവരും നമ്മൾക്ക് പക്ഷെ നമുക്ക് അവരുടെ ഭാഷകൾ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും മലയാള ഭാഷയെന്ന് പറയുന്നത് പെട്ടെന്നൊരു മനുഷ്യൻ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അതിന് നമ്മൾ മലയാളഭാഷ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് എളുപ്പമായിട്ട് തോന്നും പിന്നെ ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റുള്ള ഭാഷക്കാർ നമ്മുടെ ഭാഷ സംസാരിക്കുമ്പോൾ പഠിച്ചെടുക്കാൻ പാടാണ് ഓരോരോ വാക്കുകൾ ഉച്ഛാരണം തെറ്റിപ്പോവും അവരുടെ സംസാരം പക്ഷെ നമ്മുടെ ഇപ്പം ഹിന്ദി സംസാരിക്കുന്നൊരാൾക്ക് മലയാളഭാഷ അല്ലെങ്കിൽ മലയാള അക്ഷരം എഴുതാനും അത് വായിക്കാനും ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ ഭാഷ നമുക്കെളുപ്പമാണ് പഠിക്കാനായിട്ട് അവർ നമ്മൾ പഠിക്കുന്നതിൻ്റെ ആ അവർ അവർ സംസാരിക്കുന്നതിനെക്കാട്ടിയും നല്ലാതായിട്ട് സംസാരിക്കുന്ന നമ്മളെ കൂടെയൊക്കെയുള്ള മലയാളികൾ തന്നെയുണ്ട്

അങ്ങാനെയാണ് മലയാളഭാഷ നമ്മുടെ ഇതിൽ നമ്മൾ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ ഭാഷ തന്നെയാണ് നല്ലത് അതിൻ്റെ ഉച്ചാരണം തെറ്റിപ്പോയെങ്കിൽ അത് വേറെ രീതിയായിട്ട് മാറും എന്നൊക്കെയുള്ള ഇതാണ്